ഞങ്ങളുടെ ആരോഗ്യകേന്ദ്രമെന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടെ ഹോസ്പിറ്റലുണ്ട് ജില്ലാ ആശുപത്രി അതിലാണെങ്കിൽ അവിടെ പോയാൽ ഭയങ്കര ക്യുവാണ് നമുക്ക് പിന്നെ നിന്ന് നിന്ന് മടുക്കും ഓരോ രാവിലെ പോയ ഉച്ച വരെ നിൽക്കണം പിന്നെ എന്നിട്ട് തന്നെ ഡോക്ടറെ കണ്ടാൽ ഡോക്ടർ മര്യാദക്ക് മരുന്നില്ല കാര്യങ്ങളൊന്നും ഇല്ല അവിടെ മരുന്നൊന്നും കിട്ടൂല എല്ലാം പുറത്തേക്കാണ് നമുക്ക് എഴുതിത്തരുക അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആരോഗ്യകേന്ദ്രത്തിൻ്റെ പ്രത്യേകത പോയാൽ ഡോക്ടര്മാർ തന്നെ ഉണ്ടാവില്ല ചില സമയം പേര് മെഡിക്കൽ കോളേജ് എന്നാണ് പക്ഷേ അവിടെ പോയാൽ ഒരു മരുന്ന് പോലും നമുക്ക് ലഭിക്കുന്നല്ല പിന്നെ രോഗികളെല്ലാം ഭയങ്കര കഷ്ടത്തിലാണ് പിന്നെ ഇഷ് ഇഷ്ടംപോലെ സൗകര്യം ഉണ്ടാവും ഹോസ്പിറ്റലിൽ പക്ഷേ നമുക്ക് ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല പിന്നെ അടുത്ത് ഹോസ്പിറ്റലെന്ന് പറയുമ്പം പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റല് അതെല്ലാം ഉണ്ട് പക്ഷേ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അധികം ആൾക്കാരും പോവുക ഇവിടെ ഇപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ അങ്ങനെ നോട്ടവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് മരുന്നെല്ലാം വാങ്ങി വരുന്നത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഇല്ലാത്തവരുടെ കാര്യം കഷ്ടം തന്നെയാണ് അങ്ങനെയൊക്കെയാണ് എല്ലാരേം എല്ലാവരും കഴിയുന്നത്